തിരുവല്ല ഗ്യാസ് ഏജൻസി അല്ലേ ആ എന്റെ പേര് ബിബിൻ ജോർജ് എന്നാണേ ഞാൻ വിളിക്കുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ് അപ്പം എനിക്ക് എന്റെ അഡ്രസ്സ് മാറി ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ട് മാറിയതാണേ അപ്പം എന്റെ റെഫറൻസ് നമ്പർ അഞ്ച് അഞ്ച് ആറ് നാല് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് ആറ് നാല് ഒൻപത് ഇതാണ് എന്റെ റെഫറൻസ് നമ്പർ ഈ നമ്പർ വെച്ചിട്ട് എന്റെ എന്റെ അഡ്രസ്സ് മാറിയതുകൊണ്ട് ഇനി തൊട്ട് ഡെലിവറി ആ അഡ്രസ്സിലേക്ക് ഒന്ന് ആക്കാമോ അപ്പോൾ എന്റെ അഡ്രസ്സ് ഞാൻ പറയാം ബിബിൻ ജോർജ് തോമസ് കരൂർ ഹൗസ് കോഴഞ്ചേരി പി ഒ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് കേട്ടോ ഓക്കെ താങ്ക് യു